കായിക വിനോദങ്ങൾ ഗ്രാമീണരുടെ ജീവിതത്തിലും ഒരുപാട് പ്രാധാന്യം അർഹിക്കുന്നൊരു കാര്യമാണ് കാരണം ഒരു ഗ്രാമത്തിലൊരു മത്സരം നടക്കുന്നു പറഞ്ഞാൽ ആ ഗ്രാമത്തിലെ ഒട്ടുമിക്ക എല്ലാവരും കുട്ടികളും മുതിർന്നവരും എല്ലാവരും അവിടെ വരുകയും അവിടെ എന്താപറയുക അവിടെന്ന് കളി കാണുവേം ചെയ്യാം കൂടാണ്ട് ഇപ്പം നമ്മുടെ ഗ്രാമങ്ങളിൽ പിള്ളേരൊക്കെ കളിക്കണ സമയത്തും മാതാപിതാക്കളും അവിടെ ഉള്ള അയൽവാസികളെല്ലാം അവിടെ കളി നടക്കുന്നിടത്ത് വന്നിരിക്കേം ആ കളി അവർ ഒരുപാട് നിരീക്ഷിക്കുകയും ചെയ്യുന്നു കായിക വിനോദങ്ങളാണ് ശരിക്കും ഗ്രാമീണ ജീവിതത്തിൽ ഗ്രാമീണരുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനം അർഹിക്കുന്ന കൂട്ടത്തിൽ ഒന്ന് ഒന്നാണ് ഈ കായിക വിനോദങ്ങളെന്ന് പറയുന്നത് വൈകുന്നേരം വലിയ വലിയ കളികൾ നടക്കുന്ന സമയത്തും എല്ലാവരും ഒരുമിച്ച് കൂടിയിരുന്നിട്ട് ആ കളികളെ കുറിച്ച് കളി കാണുന്നതും പിന്നെ കളി കഴിഞ്ഞ ശേഷം അതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നതൊക്കെ ഗ്രാമീണരുടെ ഒരു പ്രത്യേകതയായിട്ടാണ് നമുക്കിപ്പോഴും കാണുവാൻ സാധിക്കും ഗ്രാമീണർ ഒരുപാട് കളിയെ കളികളെ സ്നേഹിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും പിന്നെ പൊതുവേ വലിയ വലിയ സ്ഥലങ്ങളെക്കാളും കൂടുതൽ കുട്ടികൾ കളിക്കുന്നതും കളികൾ കാണാൻ പറ്റുന്നതും എല്ലാം ഗ്രാമീണ പ്രദേശങ്ങളിലാണ് അപ്പം നമുക്കെന്ത് കൊണ്ടും പറയാൻ സാധിക്കും കായിക വിനോദങ്ങൾ ഗ്രാമീണരുടെ ജീവിതത്തിൽ വളരെ ഏറെ പ്രധാന പ്രാധാന്യം അർഹിക്കുന്നൊരു സംഭവമാണെന്ന്